മൃഗങ്ങൾ എന്നു പറയുമ്പോൾ അയൽപക്കത്തെ ആട്ടിൻകുട്ടികളാണ് നമ്മുടെ കൃഷിയിനെ ബാധിക്കുന്ന ഒരു മൃഗം എന്ന് പറയാം ഇവർ വന്ന് നമ്മുടെ പച്ചപ്പ് കാണുന്ന എല്ലാം അവർ അകത്താക്കും അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ സമീപത്ത് മയിലുകളുടെ എണ്ണം ഏറി വരികയാണ് ഇപ്പോൾ കാട്ടിലല്ല മയിലുള്ളത് മൊത്തം നാട്ടിലാണ് പച്ചമുളക് അടക്കം സകലതും കൊത്തി തിന്നുന്നതാണ് ഈ മയിൽ കോഴിയും കുഞ്ഞുങ്ങളും നടക്കുന്നത് പോലെയാണ് കൂട്ടത്തോടെ മയിലും കുട്ടികളും നടന്നു പോകുന്നത് ഒരുപാട് മയിലുകളുണ്ട് ഇവരെല്ലാം തന്നെ മുറ്റത്തുള്ള പച്ച ഇല കാണുന്നതൊന്നും ബാക്കി വയ്ക്കില്ല ചീര നേരത്തെ പറഞ്ഞപോലെ പച്ചമുളക് ഇതൊന്നും അവർ ബാക്കി വ ക്കില്ല ഒക്കെ കൊത്തി തിന്നും അപ്പോൾ അവരെ സൗണ്ട് ഉണ്ടാക്കി ഓടിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പിന്നെ നല്ല ചെറിയ മുളകിൻ തൈയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വലയൊക്കെ ഇട്ടു കൊടുക്കും പിന്നെ ആട്ടിൻ കുട്ടികളെ ഇതാക്കാനായിട്ട് വേലി കെട്ടിയിട്ടും മതിലു കെട്ടിയിട്ടും ഒക്കെ തടയുന്നുണ്ട് അതിന് അപ്പുറം ഉള്ള ബുദ്ധിമുട്ടൊന്നും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല